ഹലോ ഇത് നീയോ റെസ്റ്റോറൻറ് അല്ലായിരുന്നോ ഞാൻ കോഴിക്കോട് നിന്നായിരുന്നു താമരശ്ശേരിയിൽ നിന്ന് നിങ്ങളുടെ ഹോട്ടലിലെ ഫേമസ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒന്ന് പറഞ്ഞു തരുമോ അവിടുത്തെ എന്താ കപ്പ ബിരിയാണി അങ്ങനത്തെ സാധനങ്ങളൊക്കെ നല്ലതാണെന്ന് പറയുന്നു എൻ്റെ കോഴിക്കോട് നിന്നായിരുന്നു ഫ്രണ്ട്സ് രണ്ടുപേര് പറഞ്ഞിരുന്നു അവിടെ വന്ന് കഴിച്ചവർ പറഞ്ഞിരുന്നു അവിടത്തേക്ക് നാളെ സ്പെഷൽ ആയിട്ട് എന്തൊക്കെയാണുള്ളത് എന്ന് പറഞ്ഞു തരുമോ മന്തി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടോ പിന്നെ പൊറോട്ട ബീഫ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള എന്തൊക്കെ എന്ന് പറഞ്ഞു തരുമോ കപ്പ ബീഫ് പിന്നെ പാൽ കപ്പ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ നിങ്ങളുടെ ഫുഡ് ഒക്കെ നല്ലതാണെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് നിങ്ങളുടെ സർവീസും ഹോട്ടലിൻ്റെ സ്ഥലങ്ങളും എല്ലാം നല്ലതാണ് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു അവിടെ മെയിൻ ആയിട്ടുള്ള ഡിഷസ് എന്തൊക്കെയായിരുന്നു ബീഫ് അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു അൽഫാം അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെയാണോ